ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണ് അത് എല്ലാ ചേരുവകളും നമുക്കിപ്പോൾ വീട്ടിൽ ഉണ്ടാവുമല്ലോ പൊതുവേ അത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ആദ്യം ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേഗം റെഡിയാക്കി വയ്ക്കും ഉള്ളിയൊക്കെ മുറിച്ചു ഉള്ളിയൊക്കെ നല്ല നൈസായിട്ടു മുറിച്ചു വയ്ക്കും പിന്നെ അതു കഴിഞ്ഞിട്ട് തക്കാളി മുറിക്കും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാംകൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷു ചെയ്തെടുക്കും എന്നിട്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില അതായത് നമ്മൾ നല്ല വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് കറിവേപ്പില ഇട്ട് നമ്മൾ ഈ റെഡിയാക്കി വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്നു വാട്ടിയെടുക്കും വാട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ആ മസാല ഇല്ലേ ആ മസാലക്കൂട്ട് ഇടും അത് നല്ലോണം ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി വരുമ്പം നമ്മൾ മല്ലിപൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി പിന്നെ ചിക്കൻ മസാല അങ്ങനെ ഉള്ളതൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ലോണം ഇളക്കും നല്ലോണം ചൂടാക്കി എടുക്കും നല്ല ഒരു പച്ചമണം മാറാവുന്ന രീതിയിൽ ചൂടാക്കി എടുത്തിട്ട് ഇതു ചിക്കൻ്റെ ആ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി എണ്ണ ഇങ്ങനെ നല്ല തിളച്ചു വരുന്നത് കാണണം അപ്പോൾ അത് കഴിഞ്ഞു ചിക്കൻ ഇടും ചിക്കൻ ഇട്ട് നല്ലോണം മൂടിവച്ച് തിളപ്പിച്ച് നല്ലോണം വേവുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി കിട്ടും അതാണു ഞാൻ ചേരുവകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയത്